പാചകം സ്ത്രീകളുടെ മാത്രം തൊഴിലാണെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല വീട്ടിലെ സ്ത്രീകൾ വളരെ വേഗതയിലും വളരെ നല്ല സ്വാദിലും പാചകം ചെയ്യുന്നു എന്നത് കൊണ്ട് സ്ത്രീകൾക്ക് മാത്രമാണ് പാചകം ചെയ്യാൻ പാടുള്ളത് വീട്ടിലെ ആണുങ്ങൾ പാചകം ചെയ്ത് കൂടാ എന്നൊന്നും ഇല്ല എൻ്റെ വീട്ടിൽ ആണുങ്ങൾ പാചകം ചെയ്യാറുണ്ട് ചില പ്രത്യേക പ്രത്യേക മായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനാണ് അവർക്ക് കൂടുതൽ താൽപര്യം എന്നാൽ എന്നാൽ ബാക്കി ഉള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാദ് സ്ത്രീകൾ ഉണ്ടാക്കുന്ന അത്ര ലഭിക്കാറില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അത് ചെയ്ത് ചെയ്ത് ശീലമായ സ്ത്രീകളുടെ പാചകം കൊണ്ടാകാം അവർക്കറിയാം ഏത് ഏത് ചേരുവകൾ ഏത് അളവിലാണ് ചേർക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിത്തന്നെ അറിയാം ആണുങ്ങൾ ചെയ്യുമ്പോഴും പലതും നല്ല രുചികരമായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു വീട്ടിൽ സ്ത്രീ പുരുഷൻ എന്ന് എന്നിങ്ങനെ സ്ത്രീ സ്ത്രീക്ക് ചെയ്യാൻ പാചകം പുരുഷന് ചെയ്യാൻ വേറെ ജോലി എന്നിങ്ങനെ വേർതിരിക്കുന്നതിൽ അർത്ഥമില്ല പാചകം സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും അത് നന്നായി ചെയ്താൽ രുചിയോടെ ആസ്വദിച്ച് കഴിക്കാൻ എല്ലാവർക്കും സ്വാധിക്കും വീട്ടിലെ ആണുങ്ങൾ പാചകം ചെയ്യുന്നത് ഒരു മോശം കാര്യമായി എനിക്ക് തോന്നിയിട്ടില്ല പല വീടുകളിലും ഇന്ന് പുതിയ തലമുറയിൽ കണ്ടുവരുന്നതും ഇപ്പോൾ സ്ത്രീകൾക്ക് ജോലിക്ക് പുറത്തേക്ക് ജോലിക്ക് പോകണമെങ്കിൽ സ്ത്രീകളുടെയും ഒരു ജോലിയായി മാത്രം പാചകത്തെ കാണാതെ ആണുങ്ങളും അതിന് സപ്പോട്ട് ആയി കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ വളരെയധ റെ സന്തോഷം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ന് പല വീടുകളിലും ആണുങ്ങൾ വളരെ നല്ല രീതിയിൽ പാചകം ചെയ്യുന്നു അത് പഠിച്ച് ചെയ്യുന്നു അതിന് വേണ്ടി കോഴ്സുകൾ എടുക്കുന്നു ഒരു ഒരു നല്ലൊരു തലമുറയെയാണ് ആണുങ്ങൾ പാചകം ചെയ്യുന്നതിലൂടെ കണ്ടെത്താനാകുന്നത് പഴയ ചിന്താഗതികളിൽ ചിന്തകളിൽ നിന്നും അതിനെയൊക്കെ മാറ്റി മറിച്ച് കൊണ്ട് പുതു തലമുറ സമത്വത്തിൻ്റെ ഒരു നാളേക്കായി ഇന്ന് തന്നെ ഇന്നേ കരുക്കൾ മുന്നോട്ട് വെക്കുന്നതായി നമുക്ക് കാണാം പാചകം സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ചെയ്യാം നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ എല്ലാവരും പാചകം അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം എല്ലാവരും എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ സ്വയം പാചകമറിഞ്ഞാൽ വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് സ്ത്രീയായാലും പുരുഷനായാലും പാചകമറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു